കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടെ നമ്മളേറ്റവും ഞെട്ടലോടെ തന്നെ കണ്ട് നിന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ എന്താന്നുവച്ചിട്ടുണ്ടെങ്കി നമ്മള് ഇടിയും ഇടിയും മിന്നും കാറ്റും മഴയും ഒക്കെ ഉള്ള സമയത്താണ് സമയത്ത് നമ്മള് അയൽ അയൽവക്കത്തൊരു വീട്ടില് എന്തോ അനുഗ്രഹം കൊണ്ട് അവിടെ വീട്ടില് ആളുകൾ ആരും ഉണ്ടായിട്ടില്ല അവരുടെ വീട്ടില് ഇടിമിന്നൽ ഏൽക്കുകയും അവരുടെ ഫ്രിഡ്ജില് തീ പിടിക്കുകയും ആ ഒരു തീൻ്റെ എഫക്ടില് ആ വീട് മുഴുവൻ കത്തിനശിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാരും അത് കണ്ടു നിക്കല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥായായിരുന്നു ആ വീട്ടിലാണെങ്കില് അരിയും അരി അരി തുടങ്ങി പാത്രങ്ങള് വീട്ടില് നമ്മള് ഉപയോഗിക്കുന്ന പാത്രങ്ങള് അവര് ഇട്ടിരിക്കുന്ന ഡ്രെസ്സുകളടക്കം എല്ലാ സാധനങ്ങളും കത്തി നശിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവർക്കിനിയൊന്നും തിരിച്ചുകിട്ടാനില്ലാതെ അവരെ രേഖകളും കുട്ടിയ്ള് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും പഠിക്കുന്ന സാധനങ്ങളും ഡ്രെസ്സുകളും എല്ലാം എല്ലാ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഒര്ഒറ്റൊരു ഇടിമിന്നലേറ്റതിൻ്റെ ഒരിതില് ഫുള്ള് കത്തി നശിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് നമ്മളെല്ലാരും അടുത്തുള്ളൊരാണെങ്കിലും അവരെ കുടുംബക്കാരാണെങ്കിലും എല്ലാരും ഞെട്ടലോടെയാണ് അതാഒരു സംഭവം കണ്ടു നിന്നത് അതാണിപ്പോൾ അടുത്തുണ്ടായേല് പെട്ടന്ന് ഓർത്തിരിക്കുന്നതും വളരെ വളരെ സങ്കടപെട്ടുപോയ എല്ലാരും ടെൻഷൻ അടിച്ചുംപോയൊരു സംഭവാണത് രണ്ടു മക്കളുണ്ടായിരുന്നു അവരന്ന് വെക്കേഷൻ കാര്യങ്ങളുംഒക്കെയായിട്ട് അവരെന്തോ അവിടുണ്ടായിരുന്നില്ല അവര് വീട്ടിൽ പോയതാരുന്നു പിന്നെ വീട്ടില് വേറെ ആരുണ്ടായിട്ടില്ല അവര് ജോലിക്ക് പോയതും പുറത്തുപോയതും ഒക്കെയായിരുന്നുആ ഒരു സമയത്തായത് കൊണ്ടന്നെ ആർക്കും ആൾക്കാർക്ക് ആർക്കും കുഴപ്പഇണ്ടായില്ല പക്ഷെ അവരുടെ വീട് പൂർണമായും കത്തി നശിച്ചു അത് നമ്മള് കണ്ടത് ഈ ഒരു അടുത്ത് കണ്ടതിലുള്ള ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരനുഭവായിട്ടാണുള്ളത്